ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് ഈ മാധ്യമങ്ങൾ എന്നറിയപ്പെടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്ന ഈ വാർത്ത മാധ്യമങ്ങൾ ഫോണിലൂടെ ഇൻറർനെറ്റിലൂടെ ഒക്കെയാണ് അത് കാരണം ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുന്നതും രാജ്യത്തിൻ്റെ എന്താണ് സംഭവിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് അറിയിക്കാൻ സാധിക്കുന്ന ഒരു മാധ്യമമാണ് ഈ മാധ്യമങ്ങളെന്ന് പറയുന്നത് തന്നെ ഒരു മീഡിയേറ്റർ ആണ് ഈ ജനങ്ങളെയും ഈ ജനാധിപത്യം സർക്കാർ അങ്ങനെയുള്ളവരെ ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് നമ്മുടെ ഈ മാധ്യമം എന്ന് പറയുന്നത് ഈ മീഡിയ ഇൻറർനെറ്റ് എന്നൊക്ക പറയുന്നത് ജനങ്ങൾക്ക് വളരെ പ്രയോജനം ഉള്ളതാണ് ജനാധിപത്യത്തെയും ഒക്കെ രാജ്യത്തിൻ്റെ പുരോഗമനത്തിനും പുരോഗതിക്കും എല്ലാം രാജ്യം നമ്മുടെ രാജ്യം ഇന്ത്യ ഇത്ര പുരോഗമിക്കാനായിട്ടുള്ള കാരണം തന്നെ ഈ മാധ്യമങ്ങളാണ് അതിലെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ എതിർപ്പ് അറിയിക്കാൻ പറ്റും നമ്മുടെ സപ്പോർട്ട് അറിയിക്കാൻ സാധിക്കും നമ്മുടെ എല്ലാം നമ്മുടെ സങ്കടങ്ങളോ എന്താണെങ്കിലും നമുക്ക് ഈ മാധ്യമങ്ങളിലൂടെ സർക്കാരെയോ അറിയിക്കേണ്ടവരെ ഒക്കെ നമുക്ക് ഇതിലൂടെ അറിയിക്കാൻ സാധിക്കും ഇപ്പം എല്ലാം ഇപ്പം എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിലും അപേക്ഷകളൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റും അതൊക്കെ ഈ മാധ്യമങ്ങളുടെ ഒരു പ്രയോജനമാണ് ഇപ്പം എന്തെങ്കിലും കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലും വില്ലേജിലോട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലേക്കുള്ള അപേക്ഷകളൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെ ഒരു മാധ്യമങ്ങളുടെ ഒരു പോസിറ്റീവ് സൈഡ് ആണ്